ജ് ജനിച്ച കുട്ടികളെ കയ്യിലെടുക്കുമ്പോൾ മുതൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടും വാത്സല്യത്തോടുമാണ് പരിപാലിക്കുന്നത് അവരുടെ ആദ്യത്തെ ആദ്യ ആദ്യത്തെ ഭക്ഷണക്രമമെന്ന് പറഞ്ഞാൽ ഭക്ഷണം ബ്രെസ്റ്റ് ഫീഡിങ്ങാണ് മുലപ്പാലിലൂടെയാണ് കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന പ്രതിരോധ ശക്തി ഒക്കെ ആദ്യത്തെ ആദ്യത്തെ പാലിലൂടെയാണെന്ന് പറയും ആദ്യം കുടിക്കുന്ന പാലിലൂടെയാണെന്ന് പറയും മുലപ്പാല് കൊടുക്കണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് കുട്ടികൾക്ക് ആറ് മാസം വരേയും മുലപ്പാൽ തന്നെയാണ് കൊടുത്ത് ശീലിക്കേണ്ടത് എന്നാൽ പിന്നെ പാലില്ലാത്ത അമ്മമാര് കാ അമ്മമാരിൽ കുട്ടികൾക്ക് വിശപ്പ് സഹിക്കാൻ പാടില്ല സഹിക്കാനായിട്ട് പറ്റാതെ കിടന്ന് കരയുന്ന നിമിഷങ്ങളിൽ നമ്മളതിന് വേണ്ടി എന്തെങ്കിലുവൊക്കെ കുട്ടികൾക്ക് ഡോക്ടറുടെ സഹായത്താല് ഇപ്പം ഒരു പീഡിയാട്രീഷ്യൻ്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ട ആഹാരം നമ്മള് ചെയ്ത് കൊടുക്കാറുണ്ട് അതില് പിന്നെ പൊടി പാൽപ്പൊടി പോലത്തെ ലാക്റ്റോജൻ അങ്ങനെ ഒക്കെയാണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ലാക്റ്റോജൻ പോലുള്ള പൊടികളൊക്കെ കൊടുത്ത് കുട്ടികളെ ശീലിപ്പിച്ചിട്ടുണ്ട് ആറുമാസത്തിന് ശേഷമാണ് കുട്ടികൾക്ക് ഖരമായിട്ടുള്ള ആഹാരങ്ങള് കൊടുത്ത് തുടങ്ങുന്നത് ഖരം എന്ന് വച്ചാല് കട്ടിയുള്ള ആഹാരങ്ങള് കട്ടിയുള്ള ആഹാരത്തിന് തുടങ്ങുന്നത് കുറുക്കിലാണ് കുട്ടികൾക്കാഹാര ക്രമം തുടങ്ങുന്നത് കുറുക്കാണ് പഞ്ഞപ്പുല്ലിൻ്റെ കുറുക്ക് ഏത്തക്ക പൊടിയുടെ കുറുക്ക് അങ്ങനെ പലതരം കുറുക്കുകളിലൂടെയാണ് കുട്ടികൾക്ക് ആഹാരം തുടങ്ങുന്നത് തന്നെ അതിന് ശേഷം ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ഒരു അതിന് മുൻപായിട്ട് ഒരഞ്ചെട്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഡലി ദോശ പോലെ ഉള്ള മയം ഉള്ള ആഹാരങ്ങള് നമ്മള് കൊടുത്ത് ശീലിക്കുന്നുണ്ട് ഒരു വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികള് നല്ല ഒരു ആഹാരത്തിൻ്റെ പൂർണ്ണതയില് എത്തിക്കും എത്തിയിരിക്കും ഒരു ചിട്ടയോടും ക്രമത്തോടും കൂടി ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് അവർക്ക് ആഹാരം കൊടുക്കണം അവരുടെ ദഹന ക്രമം രണ്ട് മണിക്കൂറിന് ശേഷ അവർക്ക് ഇടവിട്ടാണ് ആഹാരം കൊടുക്കുന്നത് പാല് ഇടക്ക് ഇടയ്ക്ക് പാല് കൊടുക്കും തിളപ്പിച്ചാറിയ വെള്ളം അങ്ങനെ കൊടുത്ത് അവരെ ശീലിപ്പിക്കുന്നു